പിന്നെ നമ്മുടെ നാട്ടിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ധാരാളമുണ്ട് പ്രധാനമായിട്ടും ഈ നെൽക്കൃഷി അങ്ങനത്തെ കൃഷികളൊക്കെ ആണെങ്കിൽ ആദ്യം ഉപയോഗിക്കണ ഉപകരണങ്ങളാണ് ട്രാക്ടർ നമ്മളെ ഭൂമിയെ ഉഴിതുമറിക്കാനും അപ്പം ആ കൃഷിക്കനുയോജ്യമായൊരു സ്ഥലമാക്കിയപാട് ആ കൃഷിസ്ഥലത്തെ മാറ്റം ഉപയോഗിക്കാനാണ് ട്രാക്ടറ് കൂടാതെ അതിനെക്കൊണ്ട് വേറെയും കുറേ പ്രയോജനങ്ങളുണ്ട് നമ്മൾക്ക് കൃഷിസ്ഥലം ഒരുക്കാൻ അപ്പോൾ ഈ നല്ല അത് അതുപോലത്തെ കൃഷിയിനെ വിളവെടുക്കാൻ പിന്നെ ആ വിളവെടുത്തത് ട്രാൻസ്പോർട്ട് ചെയ്യാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനൊക്കെ ഈ ട്രാക്ടറ് വളരെ പ്രയോജനമാണ് അപ്പോൾ അത് ഭയങ്കര സമയലാഭം ലഭിക്കണ ഒന്നാണ് ട്രാക്ടറ് പിന്നെ നമ്മൾ ഉപയോഗിക്കണ ഉപകരണങ്ങളിൽപ്പെട്ടതാണ് കൈക്കോട്ട് തൂമ്പ എന്നു പറയും എന്തുകൊണ്ടാ പറഞ്ഞാലിപ്പം തെങ്ങൊക്കെയാണെങ്കിൽ അതിൻ്റെ തടം വച്ചുകൊടുക്കാനും അതുപോലെ മറ്റു കൃഷികൾക്ക് തളം വച്ചു കൊടുക്കാൻ അതുപിന്നെ കൃഷിക്കുള്ള വിത്തുകൾ ഇടാൻ വേണ്ടിയിട്ട് അതിനായിട്ട് കുഴികുത്തി അവിടെ സെറ്റ് ചെയ്യാൻ അതിനൊക്കെയാണ് കൈക്കോട്ടു ഉപയോഗിക്കണത് പിന്നെ ഉപയോഗിക്കണ ഉപകരങ്ങളിൽപ്പെട്ടതാണ് മറ്റേ പിക്കാസ് അതേമാതിരി വള്ളം അടിക്കാണ്ട് ഉപയോഗിക്കണ ഓസ് പൈപ്പ് കാര്യങ്ങൾ അതേമാതിരി അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട് അതിൽ എല്ലാത്തിലും ഓരോന്ന് പ്രയോജനങ്ങൾ അധികമുള്ള സാധനങ്ങളാണ് ട്രാക്ടറാണ് അതിനോട് ആ നമുക്കൊരു ഫാമിലി വണ്ടി മിനി ഫാമിലി വണ്ടിയായിട്ടുവരെ ഉപയോഗിക്കാൻ പറ്റും കൃഷിയൊക്കെ ആണങ്കിൽ ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിളവെടുക്കാൻ അതേമാതിരി വിളവെടുക്കാനൊക്കെ അതാണ് ഉപയോഗിക്കണത് ഇനി തെങ്ങിൽ നിന്ന് വിളവെടുക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ് തെങ്ങു കയറണ മിഷീൻ ആദ്യകാലത്തൊക്കെ കയറിന്മേൽ കാലിന്മേൽ കയർ കെട്ടിയിട്ട് നമ്മൾ തെങ്ങ് കയറലായിരുന്നു ഇതാവുമ്പോൾ മിഷീന്മേൽ നിന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ കയറി ഇറങ്ങാം ആ തെങ്ങിൻ്റെ വിളവ് എടുക്കുകയും ചെയ്യാം അതുപോലെ ഈ ബഡ്ഡിങ്ങ് എന്ന് പറഞ്ഞൊരു സംഭവം അത് കൃഷിയിൽ അതും വളരെ പ്രയോജനപ്പെട്ടൊരു കാര്യമാണ് കൃഷിയിൻ്റെ കാര്യത്തിൽ